നമ്മളിപ്പം സ്ഥലങ്ങളില് പഠിച്ചിട്ടൊന്നും കാര്യഇല്ല ഇപ്പം കൂടുതലാൾക്കാർക്കും ജോലിയില്ലാത്തതാണ് മെയിൻ പ്രശ്നം അതേപ്പോൾത്തന്നെ അതേപോലെ തന്നെയാണ് ഏറ്റവും വല്യ പ്രശ്നന്താന്നുവെച്ചുകഴിഞ്ഞാൽ വികസനം ഇല്ല ഒരുസ്ഥലത്തും ജോലിയില്ലാത്ത അവസ്ഥയാണ് ഇപ്പം പണിയില്ലാത്തയാണ് മെയിൻ പ്രശ്നായിട്ടുള്ളത് അതേപോലെ തന്നെയാണ് ഏറ്റവും വലിയ കഷ്ടം അതേപോലെ നമ്മൾക്കിപ്പം ഏറ്റവും നല്ലത്ന്നു വെച്ചാൽ ജോലിയാണ് വേണ്ടത് അതേപോലെ നമ്മളിപ്പം ജോലിയില്ലാണ്ട് നടക്കൂല ജീവിക്കാനിപ്പം പൈസയില്ലാത്ത അവസ്ഥയാണ് ഓരോ വീട്ടിലും വന്നോണ്ടിക്കുന്നെ കൂലിപ്പണി ലോഡിങ്ങിനൊക്കെ പോണ്ട അവസ്ഥയാണിപ്പം വന്നോണ്ടിരിക്കുന്നത് നല്ല ജോലിയില്ല എത്ര ബിഎഡ് ആയാലും എന്ത് പഠിച്ചാലും ഇപ്പം കുട്ടികൾക്ക് ജോലിയില്ലാത്തവസ്ഥയാണ് കൂടുതലും പൈസകൊടുത്തിട്ടാണ് ഇപ്പം സീറ്റൊക്കെ എടുക്കുന്നെ ഡോക്ടറായാലും നേഴ്സായാലും എന്തായാലും അങ്ങനെയാണിപ്പം എടുക്കുന്നത് കൂടുതലും ഇപ്പം അങ്ങനത്തെയാണ് അവസ്ഥ കാണുന്നത് ഇപ്പം നാട്ട്ലൊന്നും ജോലി അങ്ങനത്തെയൊന്നു ഇല്ല മെയിൻ പ്രശ്നനാണതിപ്പൊ ഇപ്പൊ കൂടുതൽ പേരും കൂലിപ്പണിയും എത്ര പഠിച്ചവരായാലും കൂലിപ്പണിയും വീട്ടുകാരെ പോറ്റാൻ വേണ്ടി കൂലിപ്പണിക്കും എല്ലത്തിനും പോകുന്നുണ്ട് അല്ലാണ്ടിപ്പം നിവൃത്തിയില്ല